നമ്മുടെ പ്രദേശത്തു കൂടുതലായിട്ടും ആചരിച്ചു വരുന്ന രാവിലെ എണീക്കുമ്പോളെല്ലാവരും വെളുപ്പിനേ കുരിശ് മണിയടിക്കുമ്പം കുരിശ് വരച്ചിട്ടെണീക്കുക ആറു മണിയാകുമ്പം പള്ളിയിൽ പോകുക ആറു മണിയാകുമ്പം പള്ളിയിൽ പോയതിനു ശേഷം വന്ന് നമ്മുടെ വിശുദ്ധ കുർബാനേ പങ്കു കൊള്ളുകയെന്നതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം അതിനു ശേഷം നമ്മുടെ കുരിശ് മണിയടി വൈകുന്നേരം ആറേമുക്കാലോടു കൂടി കുരിശ് മണിയടിക്കും കുരിശ് മണിയടിക്കുമ്പോഴത്തേക്കും നമ്മൾ ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളായത് ക്രിസ്ത്യാ ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ മതവ്യത്യാസമൊന്നുമില്ല ഏതൊരു വ്യക്തിയും കുരിശ് മണിയടിക്കുമ്പം നെറ്റിയിലൊരു കുരിശ് വരച്ച് സന്ധ്യാ പ്രാർത്ഥനയിൽ

നമ്മുടാചാരങ്ങളാണ് കൂടുതലും പള്ളിയിൽ പെരുന്നാളായിട്ടും പള്ളിയിൽ പെരുന്നാളുണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ ആലപ്പുഴ ജില്ലയിലൊരുപാട് തീർത്ഥാടന കേന്ദ്ര കേന്ദ്രങ്ങളുണ്ട് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട് വിശുദ്ധ ചാവറ കുര്യാക്കോസച്ചൻ്റെ തീർത്ഥാടന കേന്ദ്രമുണ്ട് കൃപാസന മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമുണ്ട് അങ്ങനെ ഒരുപാടൊരുപാട് തീർത്ഥാടന കേന്ദ്രം സെൻറ്റ് ജോർജ് ചർച്ച് എടത്വ അവിടെയുണ്ട് വഴിപാടുകൾ ചടങ്ങുകൾ എല്ലാ രാവിലെ നമ്മൾ പള്ളിയിൽപ്പോയതിനു ശേഷമാണ് നമ്മൾക്കെന്തെങ്കിലൊരു ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ നമ്മൾ ഒരു മാനസികമായും മാനസികമായിട്ട് വെല്ലു വിളികൾ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ വിളിക്കുന്നതു കൊണ്ടും നമ്മളതിനെ ഒരു കല് കുരിശായൊരു കുരിശടിയിൽ പോയൊരു തിരി കത്തിക്കുകയേ അല്ലേയൊരു നേർച്ച നേർച്ചയിട്ട് പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെയാണ് പിന്നല്ലാതെ വരുന്ന പ്രാർത്ഥനകൾ ഇവിടെ മുസ്ലിം മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരുണ്ട് അവരുടെ അവരുടെ ആചാരങ്ങളുണ്ട് അവരുടെ മുസ്ലീം സമൂഹത്തിൽപ്പെട്ട വ്യക്തികളിൽ പ്രധാനമായിട്ടു ള്ള ദിവസങ്ങളെന്നു പറയുന്നത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഉച്ചക്ക് ഒന്ന് ഒരു പന്ത്രണ്ടരയോടു കൂടി അവരുടെ പള്ളിയിലുണ്ടാകുന്ന മതപ്രഭാഷണം അങ്ങനെ പ്രാർത്ഥനകൾ ഒരോന്നൊന്നര ഒന്നര മണിക്കൂറോളം അവരുടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഓരോ കാര്യങ്ങളവർ എല്ലാവരും കൂടി കൂടുന്നൊരു ദിവസമാണ് അതല്ലാതെയവർക്കു ദിവസവും പുലർച്ച നാലരയ്ക്ക് പുലർച്ച നാലരക്ക് നാലരക്ക് ബാങ്ക് കൊടുക്കുകയും അതിനനുസരിച്ച് ബാങ്ക് വിളിച്ച് ബാങ്ക് വിളിയോടു കൂടി അവരുടെയൊരു ദിവസമാരംഭിക്കും അതു കൊണ്ടു തന്നെ അത് അതോടു കൂടി അവരുടെ ദിവസം തുടങ്ങുകയും അതിൽ തുടങ്ങുന്നതാണ് അവരുടെ അവരുടെ പ്രാർത്ഥനകളും കര്യങ്ങളുമൊക്കെ പിന്നവരുടെ വേദപുസ്തകങ്ങളായ ഖുറാൻ ഖുറാനോതുക നമസ്കരിക്കുക നമസ്കാരമാണവർക്ക് ദിവസം ഒരു ദിവസം അഞ്ച് നേരം അവർക്ക് നമസ്കാരമുണ്ട് അതവരുടെ മത മതത്തിൽപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യമാണ് പിന്നെ ഹിന്ദു ഹിന്ദു ആചാരത്തിൽപ്പെട്ടവരാണെങ്കിൽ രാവിലെയെണീച്ച് അഞ്ച് മണിയാകുമ്പം എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകുക പുലർ രാവിലെ അമ്പലത്തിൽപ്പോയവരുടെ പ്രാർത്ഥന രീതികൾ വഴിപാടുകളുമൊക്കെ നടത്തുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയകാര്യം അങ്ങനെ നമ്മളുടെ എല്ലാവരെയും എല്ലാ വഴിപാടുകളും കാര്യങ്ങളൊക്കെയുണ്ട് എല്ലാ ര എല്ലാ മതത്ത മതസ്ഥർക്കും പറ്റിയ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് എല്ലായിടത്തും പോകുന്നത് അവെ ഓരോ വ്യക്തികളുടെ ഒരൂ വ്യക്തികളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യാനുസൃതമാണാ ഓരോ സ്ഥലങ്ങളിലും അവർ ചൊരിയുന്നതും ചെന്നെത്തിപ്പെടുന്നതും അതു കൊണ്ടു തന്നെ നമ്മളും ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടേതായിട്ടുള്ള അമ്പലങ്ങളുണ്ട് ഗുരുവായൂർ പോലെ അങ്ങനെ ദൂരമുള്ള സ്ഥങ്ങളിലൊക്കെയുണ്ട് അങ്ങനെയൊക്കൊരുപാടൊരുപാട് സ്ഥലങ്ങളിൽ പോകുകയും നമ്മൾ കാണുകയും കണ്ടിരിക്കുന്നതുമുണ്ട് നമ്മുടെ നാട്ടിൽ കൂടുതലും നമ്മുടെ പ്രദേശത്ത് കൂടുതൽ ആചരിച്ചു വരുന്ന കാര്യങ്ങൾ അമ്പലത്തിലുത്സവം അവിടെ അതിൽ വരുന്ന താലപ്പൊലി അത് ആനയെ എഴുന്നള്ളിത്ത് കൊണ്ടു വരിക അങ്ങനെയുള്ള അവരുടെ പ്രതിഷ്ഠയേ നമ്മൾ കാണാൻ എന്നതൊക്കെയാണ് കൂടുതൽ വരുന്നത് നമ്മുടെ ക്രിസ്ത്യൻ വിഭാ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ നമ്മുടെ പള്ളിപ്പെരുന്നാളും അതിനോടനുബന്ധിച്ചെടുക്കുന്ന നേർച്ചകൾ വഴിപാടുകൾ ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളുമാണ് കൂടുതലും വരുന്നതും നേർച്ചകളും വഴിപാടുകളും എന്നു പറയുമ്പം പള്ളിയിൽ വരുന്നവർക്കു കൂടുതലും ഊട്ട് നേർച്ചയുണ്ട് പാച്ചോട്ട് നേർച്ച അങ്ങനെ ഒരുപാട് അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണമാണ് നമ്മൾ നടത്തി കൊണ്ടു പോകുന്നത് അതിൽ നമുക്ക് ഒരു പ്രധാന പങ്കു വഹിക്കുന്നത് ഊട്ട് നേർച്ചക്കായിരിക്കും എല്ലാ പള്ളികളിലുമുണ്ടാകും ഓരോ പള്ളിയിലിരിക്കുന്ന എതൊരു ഏതൊരു ഏത് ദൈവമാണോ അല്ലെങ്കിൽ ഏത് ഏതൊരു പേരിലാണോ ആ പള്ളിയറിയപ്പെടുന്നത് അവരുടെ വിശേഷ ദിവസത്തെ പ്രാർത്ഥനകളും കാര്യങ്ങളുമൊക്കെയായിരിക്കും അവിടെ നടന്നു പോരുന്നത് അത് ഓരോ വ്യക്തിപരമായ രീതിയിൽ അല്ല ആൾക്കാർ നല്ലതു പോലെ നല്ല വളരെ മാന്യമായിട്ടു വളരേ വൃത്തിയായി എല്ലാ രീതിയിലും നമുക്കിഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തു വെക്കാറുണ്ട് എല്ലാവരും വളരെ താല്പര്യപൂർവ്വം നടത്തിപ്പോകുന്നതുമാണ് ഓരോ മതത്തിൻറ്റേ അങ്ങനെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽപ്പെട്ടൊരു കാര്യം നമ്മുടെ നമ്മുടിവിടെ നടക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ ഞങ്ങളുടെ പ്രദേശം ആചരിക്കുന്ന മതപാരമ്പര്യങ്ങൾ എന്നിങ്ങനെ പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇതൊക്കെയാണ് നടന്നു വരുന്നത്